നമ്മുടെ ഈ തുരുത്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്പോർട്സ് സെന്ററുകൾ എന്ന് പറയാനൊന്നും ഇല്ല ഞങ്ങള് കൂടുതലും കോളേജ് അല്ലാ സ്കൂൾ കോളേജ് ലെവലിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതൊക്കെ ചങ്ങനാശ്ശേരിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കുറച്ച് ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടെന്നുള്ളതിൽ കവിഞ്ഞ് വേറെ സ്പോർട്സിനേയോ ഗെയിംസിനേയോ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലങ്ങനെ കാര്യമായിട്ടൊന്നും നമ്മുടെ നാടുകളിലുണ്ടായിരുന്നില്ല ഞാനൊരു കോളേജ് ഫുട് ബോൾ ടീമിലെ അംഗമായിരുന്നു ആ രീതിയിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കളിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ ഇതിനോടുള്ള ഒരു ഈ ഡെവലപ്മെൻ്റ് ഒന്നും തരുന്ന രീതിയിലാരും തന്നെ ഉദ്യമം എടുത്തിട്ടില്ല എന്നുള്ളതാണതിൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യം പിന്നെ ഞങ്ങളുടെ ഈ തുരുത്തിയെ സംബന്ധിച്ച് പറഞ്ഞാലിവിടെ ഗ്രൗണ്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇല്ല ഞങ്ങളൊക്കെ കൂടുതലും ആശ്രയിച്ചുകൊണ്ടിരുന്നത് ചങ്ങനാശ്ശേരി ഞങ്ങളുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയായിരുന്നു ആ സമയങ്ങളിലൊക്കെ കുറേയൊക്കെ സ്പോർട്സുമായിട്ട് ബന് സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് ചെയ്തിരുന്നു പിന്നെ കോളേജിലൊക്കെ കുറേയൊക്കെ പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരുന്നു അതിൻ്റെ ലെവലിൽ കുറേ പേരൊക്കെ എന്തെങ്കിലും ഒക്കെ ആയിരുന്നിട്ടുണ്ടെന്നേ ഉള്ളു അല്ലാതെ ഗവൺമെന്റ് ൻ്റെ രീതിയിലോ അല്ലേ കാര്യമായ പ്രോത്സാഹനങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമൊന്നും ആയിരുന്നില്ല ഈ പഴയകാലത്തെ ആൾക്കാര് സ്പോർട്സിനൊക്കെ പോയാൽ പഠനത്തിൽ താൽപ്പര്യം കുറയുമെന്നും അങ്ങനെ അതിനൊക്കെ പോയാൽ വലിയ ഭാവിയൊന്നും ഉണ്ടാകുകേല വളരെ കുറച്ച് ആൾക്കാർക്കെന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാവുമെന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ സ്പോർട്സിനേയും ഗെയിംസിനേയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു പഴയകാലത്തുണ്ടായിരുന്നത് അങ്ങനെ വരുമ്പോൾ പിള്ളേർക്കുമതിന് വലിയ താൽപ്പര്യങ്ങളൊന്നും കാണിച്ചുകണ്ടിട്ടില്ല സ്പോർട്സിനെപ്പറ്റി അങ്ങനെ ആർക്കും വലിയ അവഗാഹമൊന്നും ഉണ്ടായിരുന്നുമില്ല വീട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ കാര്യം ഇപ്പോഴത്തെ തലമുറ വന്നിട്ട് അവർക്കൊക്കെ സ്പോർട്സിലും ഗെയിംസിലുമൊക്കെ വീട്ടിൽ നിന്നാണേലും ധാരാളം പ്രോത്സാഹനങ്ങളും പിന്നെ കുറേയൊക്കെ ഗവൺമെൻ്റ് രീതിയിൽ ഗ്രൗണ്ടുകളും മറ്റ് ഫെസിലിറ്റീസുമൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ട് കോളേജ് ലെവലിൽ ഒക്കെ നല്ല രീതിയിൽ പ്രോത്സാഹനം കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് പിന്നെ കുറേ പേർക്കൊക്കെ ഇതുകൊണ്ട് ഒരു ഉപജീവനമാർഗ്ഗമായി പോകുന്നു ജോലി ഗവൺമെൻ്റ് കൊടുക്കുന്നു അതും വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാർക്കേ ഉള്ളു വളരെ സെലക്ടീവായിട്ടുള്ള ഇതൊക്കെ കിട്ടുന്നുള്ളു അങ്ങനെ പറയുമ്പോൾ സ്പോർട്സിനൊക്കെ പണ്ട് നേരത്തെ വലിയ താൽപ്പര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കുട്ടികളും ഇപ്പോ ഒത്തിരി പേരൊക്കെ സ്പോർട്സിലേക്കൊക്കെ താൽപ്പര്യം കാണിച്ച് മുന്നേറുന്നുണ്ട്